മലയാള ഭാഷ പഴയകാലം വെച്ച് ഇപ്പം നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഫ് റീൽസും ഫോണും ടെക്നോളജി ഒക്കെ വെച്ചിട്ട് ഒരുപാട് അത് മാറ്റങ്ങൾ ഭാഷയിൽ വന്നിട്ടുണ്ട് ഇപ്പം സംസാരത്തിലാണെങ്കിലും ഒരോ ശബ്ദത്തിൻ്റെ ഉച്ചാരണം ആണെങ്കിലും പുതിയ പുതിയ വാക്കുകൾ കൊണ്ട് വരുന്നതാണെങ്കിലും ഒരുപാട് മാറ്റം ഉണ്ട് ഇപ്പം പണ്ട് പണ്ടൊന്നും അടിപൊളി എന്നൊന്നും പറയാറില്ല പിന്നെ ഒരു ഇടയ്ക്ക് അടിപൊളി ആയി പിന്നെ ഇപ്പം അത് പൊളി ആയി അങ്ങനെ ഒരുപാട് മാറ്റം മലയാള ഭാഷയിൽ വന്നിട്ടുണ്ട് കുട്ടികൾ ഓരോ ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യുമ്പം അതനുസരിച്ച് അവർക്ക് അവരുടെ ഒരു വൈബ് സെറ്റ് ആവാനും അവരുടെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ എത്തുമ്പോഴും അവർ ഓരോ അത് പുതിയ പുതിയ വാക്കുകൾ പറയാറുണ്ട് പിന്നെ സിനിമകളിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് വാക്കുകൾ അവർ ഡെയിലി ജീവിതത്തിൽ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ മലയാള ഭാഷ ഒരുപാട് മാറ്റങ്ങളിലൂടെ കട കടന്നുപോയി ഇപ്പം എത്തിയിട്ടുണ്ട്